ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്ത് നാല് ഫെബ്രുവരി പതിമൂന്ന് രണ്ടായിരം മാര്ച്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫ്രെബ്രുവരി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി എട്ട്